എത്ര രൂപയായി ആ വൺ തൗസൻഡ് ഓക്കെ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ ചേട്ടൻ്റെ ആ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ എന്താണ് ഉള്ളതെന്ന് വച്ചാൽ ഒന്ന് പറയാവോ ഞാൻ പേയ്മെൻ്റ് അതിനകത്തേക്ക് ഇട്ടോളാം ആ തരാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് ഇട്ടോളാം ആ എൻ്റെ കൈയ്യിൽ ക്യാഷ് ആയിട്ട് ഇല്ല ആ പൈസയായിട്ട് ഇരിക്കണില്ല അത് എന്താണ് വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉപയോഗിക്കുന്നതാണ് ചേട്ടന് ആ ഗൂഗിൾ പേയ്ക്ക് ഉണ്ടെങ്കിൽ യുപിഐ ഐഡി തന്നാൽ തരാം ആ താങ്ക് യു ചേട്ടാ ഈ നമ്പറിലേക്കാണോ അയക്കണ്ടത് ഈ തന്നേക്കണ ഫോൺ നമ്പറ് കറക്റ്റ് ആണല്ലോ അല്ലേ ഏഹ് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് ആറ് നാല് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് ഇത് തന്നെ അല്ലേ ഓക്കെ ഓക്കെ ചേട്ടൻ്റെ പേര് ബിജു ഓക്കെ ഓക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലേ വന്നിട്ടുണ്ട് കേട്ടോ എമമൗണ്ട് ആ ക്രെഡിറ്റായോ എന്ന് നോക്കുക ആയിട്ടുണ്ട് ആയില്ലേ താങ്ക് യു